വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പഠിക്കാൻ താല്പര്യം ഉള്ള ആൾക്കാർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം പക്ഷേ അതിനെന്താണെ ന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒരു പ്രശ്നമാണ് പണ്ടത്തെപ്പോലെ ഒന്നുമല്ല ഇപ്പോൾ ഓരോ കോഴ്സുകൾക്ക് ഒക്കെ നല്ല ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ എൻജിനീയറിങ്ങ് ഫീൽഡ് നോക്കാണ് എന്ന് പറയുമ്പോ അവിടെ നമുക്കത് പഠിച്ച് പാസ്സായി ഇറങ്ങണമെങ്കിൽ ഒരു നാലുലക്ഷം അഞ്ച് ലക്ഷം ഉറുപ്പിക വേണ്ടിവരും അത് പോലെ ഇപ്പോ എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തുലക്ഷം വേണ്ടിവരും ഇപ്പൊ നമുക്ക് വിമാനം ഓടിക്കാൻ പൈലറ്റ് ആകണം പറഞ്ഞാ ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം എങ്ങനെയും വേണം എം ബി എക്ക് ആണെങ്കിൽ അഞ്ച് രണ്ടുമൂന്നു ലക്ഷം അങ്ങനെ വേണം അങ്ങനെ ഓരോ കോഴ്സിനും പൈസ ഇപ്പോൾ ഭയങ്കര ഇതാണ് കാരണം ഇപ്പോൾ പുതിയ പുതിയ ആയിട്ട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് പിന്നെ പ്രൈവറ്റ് കോളേജുകൾ ആകുമ്പോൾ അതിൻ്റെതായ ഫീസും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്കിപ്പോ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബാങ്കുകളുടെ ഒരു ആനുകൂല്യം വെച്ച് കിട്ടുന്നതാണ് നമുക്ക് ഈ വിദ്യാഭ്യാസ ലോൺ അതിനിപ്പോ ഓരോ ബാങ്കിനും ഓരോ ചില ബാങ്കുകൾക്ക് വിദ്യാഭ്യാസ ലോൺ വിദ്യാഭ്യാസ ലോണിന് പോയിക്കഴിഞ്ഞാൽ അവർക്ക് പലിശയും ചില ബാങ്കുകൾക്ക് പലിശ ഉണ്ടാവില്ല ചില ബാങ്കുകളില് കുറഞ്ഞ പലിശക്ക് കിട്ടും ചില ബാങ്കുകളിൽ കൂടുതൽ പലിശയില് കിട്ടും അങ്ങനെ ഓരോ ഇതുണ്ട് ഇപ്പോ നമ്മളെ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ ഒരു ബാങ്കിൽ പോകണമെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പോ സർക്കാരിൻ്റെ അലോട്ട്മെൻറ്ല് കിട്ടിക്കഴിഞ്ഞാ ആ സർക്കാർ അലോട്ട്മെന്റീൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം പിന്നെ നമ്മൾ നമ്മളുടെ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു കോപ്പി കൊണ്ടുപോകണം പിന്നെ നമുക്ക് നമ്മുടെ ബാങ്കില് നമുക്ക് ഒറ്റയ്ക്ക് ആയിട്ടല്ല നമുക്ക് തരുക ഇപ്പൊ നമുക്ക് നമ്മുടെ ഗാർഡിയൻ്റെ പേരിലോ പാരന്റിൻ്റെ പേരിലോ അങ്ങനെയായിരിക്കും നമുക്ക് വിദ്യാഭ്യാസ ലോൺ തരുക പിന്നെ നമുക്കത് ചില സമയത്ത് നാല് ഇപ്പൊ എത്ര കൊല്ലമാണോ പഠിക്കേണ്ടത് അത്രയും കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി അല്ലെങ്കിൽ രണ്ടുകൊല്ലം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് അതില് സർക്കാരിൻ്റെ നമുക്ക് ചിലപ്പോ പലിശ കുറെ സർക്കാർ തന്നെ നമുക്ക് തിരിച്ചടക്കും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ലോണ് നമുക്ക് അടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ ഇപ്പോൾ രണ്ടുമൂന്നു കൊല്ലം കഴിഞ്ഞിട്ടാണ് അടക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാലും അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് പലിശ കമ്മി ആക്കി തരും വേറെന്തെങ്കിലും പ്രശ്നമാണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലിശ ചിലപ്പോൾ അവര് കമ്മിയാക്കി തരാനും ചാൻസുണ്ട് അപ്പോ ഒരു ബാങ്കിലെ ബാ അതായത് ആ ബാങ്കിൻറെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും അപ്പോ അതിൻറെ കാര്യങ്ങള് പല പല ബാങ്കുകളിലും പല പലിശയാണ് ഞാന് ഞാനി എൻറെ അറിവിൽ ഒരു ഏട്ടന് ഇപ്പോൾ ഇവിടെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അയാള് എസ് ബി ഐയിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അയാൾക്ക് പതിനൊന്നര ശതമാനം പലിശയിൽ ആണ് ഇപ്പോ ലോൺ കിട്ടിയത് അതായത് മൂന്നര നാല് നാലില്ല ആ നാല് ലക്ഷത്തിൻ്റെ അടുത്താണ് എടുത്തത് എൻജിനീയറിങ് പഠിക്കാൻ വേണ്ടി എടുത്തതാണ് നാല് ലക്ഷത്തിന് അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ അത് ഇപ്പോ ഏകദേശം ഒരു അഞ്ച് അഞ്ചരലക്ഷം ആയിട്ടുണ്ട് എന്നാണ് എൻറെ ഒരു തോന്നൽ അയാൾ അടച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു എട്ടു എട്ടു അടച്ച് വരുമ്പോ ഒരു ഏഴ് ഏഴര എട്ട് ലക്ഷം എത്ര ശതമാനം പലിശയാണോ അതുപോലെ ഇരിക്കും ഇപ്പോ ചില ബാങ്ക് പഞ്ചാബ് അങ്ങനെ വേറെ ഏതോ കനറാ ബാങ്ക് ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട് അതിനൊന്നും പലിശയും കാര്യങ്ങളും ഇല്ല നേരെമറിച്ച് അപ്പോ ഇങ്ങനത്തെ കിട്ടുമ്പോ പലിശ ഇല്ലാത്തത് കിട്ടുമ്പോൾ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാ നമുക്കാ മുതല് മാത്രം ഒരു നാല് കൊല്ലത്ത് കൊണ്ട് അടച്ചാൽ നാലോ അഞ്ചോ കൊല്ലങ്ങൾ കൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് അടച്ചാൽ മതി അപ്പോ പിന്നെ ആ ഈ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പൈസ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ നമ്മുടെ സെമ്മിൻ്റെ ആ എപ്പോഴാണോ ഫീസ് അടക്കേണ്ടത് ആ സമയത്ത് അവിടുന്ന് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് അത് പാസാകും അപ്പോൾ നമുക്ക് വേറെ ടെൻഷൻ ഒന്നും വേണ്ടിവരില്ല അതില്